കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എനിക്ക് ഉണ്ടായ അനുഭവം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം എന്നു പറഞ്ഞാൽ ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായത് ഒരു ഏക്സിഡന്റ് ഉണ്ടായിരുന്നു അതായത് എതിരെ വന്നൊരു ഒരു എന്താ പറയുക ബൈക്കുകാരൻ എന്നെ വന്ന് ഇടിക്കുകയായിരുന്നു ഞാൻ എന്റെ മറ്റേ ലൈനിൽക്കൂടി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇടത്തെ സൈഡിൽക്കൂടി തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ എന്ത് ചെയ്തു വേറൊരു ഒരു വണ്ടി ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ഓവർടേക്ക് ചെയ്ത് കയറി എന്നെ വന്ന് ഇടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എന്റെ കാലിൽ ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു അങ്ങനെ പൊട്ടി ഞാൻ എന്ത് ചെയ്തു അവിടെ നിലത്ത് വീണു അയാളെ ചീത്തയും വിളിച്ചു ഞാൻ അവിടെ നിലത്ത് വീണു എനിക്ക് കാൽ കുത്താൻ പറ്റാണ്ട് ആയായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ കസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കസിൻസ് എന്നെ വേഗം പിടിച്ച് എണീപ്പിച്ച് അവരുടെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു തോർത്ത് ഒക്കെ എടുത്ത് എന്റെ കാൽ കെട്ടി കാലിലൂടെ നല്ലോണം ചോരയും ഭയങ്കരമായിട്ട് പോവുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൈവേദന മാത്രമാണ് മര്യാദയ്ക്ക് ഉണ്ടായിരുന്നത് ആ സമയത്ത് കാലിന്റെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല കൈ ഒടിഞ്ഞുവെന്നു പറഞ്ഞിട്ട് ഞാൻ ഇവന്മാരോട് പറയുന്നുണ്ടായിരുന്നു കൈ ഒടിഞ്ഞു കൈ ഭയങ്കര വേദനയാണെന്നും ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഇവന്മാർ വേഗം എന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആദ്യം പുൽപള്ളി ഹോസ്പിറ്റലിൽ ആയിരുന്നു ചെന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ നേരെ ബത്തേരിയ്ക്ക് കൊണ്ടു പൊയ്ക്കോളൂ എന്നു പറഞ്ഞു എന്നിട്ട് മാമന്റെ വണ്ടി ഉണ്ടായിരുന്നു ജീപ്പിലാണ് പോയത് എനിക്ക് കുറച്ചു കഴിമ്പോഴത്തേക്കും എനിക്ക് കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി കയ്യും ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങി കൈ പൊട്ടുണ്ടായിരുന്നു കാലിന്റെ മൂന്നു വിരലുകൾ എന്റെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വിനായകയെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ബത്തേരി അവിടെയായിരുന്നു ഞാൻ അഡ്മിറ്റ് ആയത് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അവർ ഓപ്പറേഷൻ അന്നു തന്നെ ഓപ്പറേഷൻ ചെയ്തു എന്റെ ഒരു വെയിൻ കട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് ഓപ്പറേഷൻ ചെയ്തു വീട്ടുകാരെ അറിയിച്ചു വീട്ടികാരൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു എന്റെ വീട് പനവില്ലയാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ അമ്മയും അച്ഛനും ഒക്കെ ഓടി വന്നു എനിക്ക് എന്റെ സമ്മതപത്രം ഒക്കെ ഒപ്പിട്ടു കൊടുത്തത് മാമന്റെ മക്കളായിരുന്നു അവരായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ എന്നിട്ട് അവിടെ നിന്നുതന്നെ അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ ഒരു രണ്ടു മാസത്തോളം എനിക്ക് നടക്കാണ്ട് ആയായിരുന്നു അതാണ് ഇപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഒരു രണ്ടു മാസത്തോളം എനിക്ക് നടക്കാൻ പറ്റാണ്ടുള്ള ഒരു സങ്കടം ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്